സംഗീതം ഏതൊരു മനുഷ്യൻ എന്ന പോലെ എനിക്കും ഏറ്റവും ഇഷ്ട്ടമുള്ള ഒരു സംഗതിയാണ് സംഗീതം എനിക്ക് ഏതെങ്കിലുമൊരു ദുഃഖം അല്ലങ്കിൽ ഏതെങ്കിലുമൊരു സന്തോഷം അല്ലങ്കിൽ ഏതെങ്കിലും നഷ്ടബോധം ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ താങ്ങി നിർത്തിയിരുന്നത് താങ്ങി നിർത്തുന്നതും സംഗീതം തന്നെയാണ് എൻ്റെ മ്യൂസിക് ടേസ്റ്റ് പലപ്പോഴും പലരിൽ നിന്നും വ്യത്യസ്ഥമായിട്ടാണ് തോന്നിയിട്ടുണ്ട് ഈ അടിച്ചുപൊളി ടൈപ്പ് പാട്ടുകളെ കാട്ടിൽ മെലഡിയാ മെലഡി ടൈപ്പ് പാട്ടുകൾ ക്ലാസിക്കൽ സെമി ക്ലാസ്സിക്കൽ ടൈപ്പ് സോങ്സാണെനിക്ക് കൂടുതൽ ഇഷ്ട്ടം എൻ്റെ മനസ്സിനെ കൂടുതൽ സൂത്ത് ചെയ്യുന്ന ടൈപ്പ് പാട്ടുകളാണെനിക്ക് കൂടുതൽ ഇഷ്ട്ടം അതുകൊണ്ടു തന്നെ പാട്ടും പാട്ടുകാരേയും സംഗീത സംവിധായകരേയും ലിറിസിസ്റ്റുകളെയും ഞാൻ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ഒരു ഒട്ട് മിക്ക പേരെയും എനിക്ക് നന്നായി അറിയോം ചെയ്യാം പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ ഒന്ന് രണ്ട് അധികം ഷോ കണ്ടിട്ടുണ്ട് മധു ബാലകൃഷ്ണൻ സാറിൻ്റെ ഷോ കണ്ടിട്ടുണ്ട് ശങ്കർ മഹാദേവൻ സാറിൻ്റെ ഷോകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഒരു ഗായകൻ്റെ ഒരു ഷോയാണ് അദ്ദേഹത്തിൻ്റെ ആ ഷോയ്ക്ക് ലക്ഷക്കണക്കിനെന്നു പറയുന്നത് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും എങ്കിലും വളരെയധികം ആളുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരാളായിട്ട് ഞാൻ നിന്നു പക്ഷേ എനിക്ക് അതിൽ പ്രതീക്ഷകളുണ്ടായത് പ്രദീപ് കുമാറിൻ്റെ ഒന്ന് രണ്ട് തമിഴ് സോങ്സ് ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അണ്ടർ റേറ്റഡ് സോങ്സുണ്ട് അത് അദ്ദേഹം സ്റ്റേജിൽ ലൈവായിട്ട് പാടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് അല്ലെങ്കിൽ എന്തോ ഞാൻ എൻ്റെ ആ ഒരു ആത്മാവിനെ തൊടുന്നത് കണക്കൊരു പാട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ പ്രദീപ്കുമാറിൻ്റെ പാട്ടുകൾ എപ്പോഴും എൻ്റെ പ്ലേയ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള പാട്ടുകളാണ് ആ പാട്ടുകൾ തന്നെയാണ് എന്നെ രാവിലെ ഉണർത്തുന്നതും എൻ്റെ റിങ്ടോണും ഒരു പക്ഷേ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നേരിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഷോ കാണാൻ എനിക്ക് ഒന്നു കൂടി ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുന്നു എനിക്ക് നേരിട്ട് പെർഫോമൻസ് കാണാൻ ആഗ്രഹമുള്ളത് ഹരിഹരൻ സാറിൻ്റെ പാട്ടുകളാണ് ഹരിഹരൻ സാർ പാട്ടുകളുടെ ഇടക്ക് ചേർക്കുന്ന ചില സംഗതികൾ അല്ലേൽ അദ്ദേഹത്തിന് ഏത് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് പാട്ടുകൾ വേണമെങ്കിലും ഏത് സ്കെയിലിൽ വേണമെങ്കിലും പാടാൻ കഴിയുന്നൂന്നുള്ള ആ ഒരു ഫാക്റ്ററ് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും കൂടെ പാടാനുമുള്ള ആഗ്രഹം ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കാനും ഉള്ള ഒരാഗ്രഹം എനിക്കുണ്ട് താങ്ക് യു